സ്വാഭാവികമായും ഒരു നാട്ടിലെ ഗ്രാമങ്ങള്ക്കിഴും ധാരാളം ഒരു നാട്ടിലെ ഗ്രാമങ്ങൾ ധാരാളം വയസായ അ പ്രായമായ ആളുകളുണ്ടാകുന്ന നാം അത് കാണുന്നതുമാണ് കാരണം അപ്പോൾ ഒരു ഗ്രാമത്തിൽ ഏകദേശം ധാരാളം വയസ്സായ ആളുകളുണ്ടായിരിക്കും അവർ കിടപ്പിലായിരിക്കും കിടപ്പിലായിരിക്കും അവർക്ക് ധാരാളം വ്യത്യസ്മായ കാരണങ്ങുണ്ടാകും സ്വാഭാവികമായും പ്രായാധിക്ക്യം കാരണം പല മനുഷ്യർക്ക് പല പല രോഗങ്ങൾ ഷുഗർ ഡയ ഷുഗറ് പ്രഷറ് അ കൊളസ്ട്രോള് പോലെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇന്ന് കേരളത്തിൽ മറ്റു പല ഇടങ്ങളിലും രാജ്യങ്ങളിലും കാണുന്നതാണ് പ്രായാധിക്ക്യം കാരണമുള്ള പല പ്രശ്നങ്ങളും കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം മനുഷ്യർ പ്രായാധിക്ക്യം കാരണം വയ്യാത്ത പ്രായത്തിൻ്റെ രോഗങ്ങൾ കാരണം കിടപ്പിലായി കിടക്കുന്ന ധാരാളം മനുഷ്യർ നമുക്ക് നമ്മുടെ മുന്നിലന് ധാരാളം ഉദാഹണങ്ങളെല്ലാമുണ്ട് അപ്പോൾ ഇവർക്ക് വ്യത്യസ്തമായ കാരണങ്ങളുണ്ട് കാരണം ഇ പ്രത്യേകിച്ച് ഈ കാലങ്ങളിൽ ഒരു ഭക്ഷണ ശൈലിയാണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് കാരണം മറ്റു പല മുൻ മുൻപെയുള്ള കാലങ്ങൾ മുന്നുള്ള കാലങ്ങളിൽ ധാരാളം നമുക്ക് അറിയുന്ന പോലെ വയസ്സായ മനുഷ്യരും ധാരാളം കാലം ജീവിച്ചിരുന്നു അവർക്ക് അവരുടേതായ കഴിയുന്ന അത്രയും കാലം പണിയെടുത്തു തന്നെയായിരുന്നു അവർ ജീവിച്ചിരുന്നു കാരണം അവരുടെ ഭക്ഷണ ശൈലി എന്നുള്ളത് നാം നാം ഇന്ന് കാണുന്നതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായ ഒരു ശൈലി ഭക്ഷണ ശൈലിയായിട്ടന്ന് അവർക്ക് ഉണ്ടായിരുന്നു കാരണം എത്രത്തോളം എന്ന് വെച്ചാൽ നാന്ന് ഒരു ഒരു ദിവസം ഒരു ബിരിയാണി മന്തി അൽഫാം പോലെ ധാരാളം ഭക്ഷണങ്ങൾ നമ്മുടെ വയറിലേക്ക് കഴിക്കാറുണ്ട് മറ്റുള്ളവർക്കൊരു കഞ്ഞിയായടെ ഒരു മിതമായ ഭക്ഷണം രീതിയായിരുന്നു ആ ആ ഒരു കാലത്തുള്ളൊരു ജനങ്ങൾക്കുണ്ടായിരുന്നു അത് കൊണ്ട് അവർക്ക് അവരുടെ അതിൻ്റെ മാറ്റങ്ങൾ അപ്പം ഒരു അവരുടെ ജീവിതത്തിൽ കണ്ട് തുടങ്ങുന്നത് അവരുടെ പ്രായധിക്യമായ വയസ്സായ സമയങ്ങളിലായിരുന്നു ഇക്കാലത്ത് മനുഷ്യർക്ക് അത് കാണുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഭക്ഷണ ശൈലി കാരണമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത് അതു തന്നെയാണ് യാഥാർത്യം എന്ന് എൻ്റെ മനസ് പറയുന്നു പിന്നീട് അവരുടെ കുടുംബാഗംങ്ങൾ അവരെ എങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നതിനെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായും മലയാളത്തിൽ പറയാറുള്ള പോലെ ഞാൻ അങ്ങനെ നമ്മുടെ മക്കൾ നമ്മുടെ രക്ഷിതാക്കൾ നാം എങ്ങനെയാണ് പെരുമാറിയത് അതുപോലെയായിരിക്കും നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറുക എന്നാണ് മലയാളത്തിൽ പറയാറുണ്ടല്ലോ സ്വാഭാവികമായൊരു ഒരു മാതാപിതാക്കൾ എത്ര എങ്ങനെ എന്ത് എന്നിരിക്കുമെന്ന് വെച്ചാൽ മാതാപിതാക്കൾ തൻ്റെ മക്കൾ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും വയസ്സായ കാലങ്ങളിൽ മക്കളും തൻ്റെ മാതാപിതാക്കളെ നോക്കും എങ്കിലും ധാരാളം വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുന്ന ശൈലി മലയാളികൾക്കിടയിലും ഉണ്ട് എൻ്റെ നാട്ടിലും എൻ്റെ നാട്ടിലിതില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അതുപോലുള്ള കാര്യങ്ങൾ ഞാൻ കേട്ടിട്ട് കേട്ട അറിവ് പോലുമില്ല എൻ്റെ നാട്ടുകളിൽ ഈ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കിയത് ഒന്നില്ല പക്ഷേ വളരെ നല്ല രീതിയിൽ സ്നേഹത്തോട് തന്നെ ശുശ്രൂഷിക്കുന്നുണ്ട് കാരണം അവരുടെ ആവശ്യങ്ങൾക്ക് അവരുടെ രീതിയിൽ ആളുകളെ വെച്ച് കൊണ്ട് എന്തിന് സ്വന്തം മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ എന്തിനും എന്തിനും വേണം മടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് കാരണം അവർ അവരുടെ ചെറുപ്പത്തിൽ അവരെ എങ്ങനെ നോക്കി അതുപോലെ തന്നെ തിരിച്ച് നോക്കണം എന്നാണ് ഞാനും എൻ്റെ നാട്ടുകാരും എല്ലാവരും വിശ്വിക്കുന്നു സ്വന്തം സ്വന്തം ഇപ്പം എന്ത് ആളുകളെ അത്രമേൽ സ്നേഹം സ്നേഹിക്കുന്നു മാതാപിതാക്കളെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരു കിടപ്പിലായ രോഗിയുടെ അവസ്ഥ സ്വന്തം മാതാപിതാക്കളെ പ്രത്യേകിച്ചെടുത്ത് നോക്കുമ്പോഴാണ് വളരെയധികം വ്യത്യസ്തമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ്